വസ്ത്രങ്ങൾ കഴുകാൻ ഞങ്ങൾ സാധാരണയായി വാഷിംഗ് മെഷീനും വെള്ളമില്ലാത്ത സമയങ്ങളിൽ അലക്ക് കല്ലുമാണ് ഉപയോഗിക്കാറ് വാഷിംഗ് മെഷീൻ ഉള്ള സമയത്ത് ഞങ്ങൾ വെള്ളം ലഭിക്കാൻ വേണ്ടി ഒരുതവണ മാത്രം അലക്കുകയും അത് നേരെ എടുത്തുകൊണ്ട് വന്ന് ഫാനിൻ്റെ ചുവട്ടിൽ ഇട്ടു ഉണക്കുകയുമാണ് പതിവ് വെയിൽ കൂടിയ സമയങ്ങളിൽ ആണെങ്കിൽ വാർപ്പിൻ്റെ മുകളിലുള്ള അയയിൻ മേലാണ് ഞങ്ങൾ വസ്ത്രം ഉണക്കാൻ വയ്ക്കാറ്